ഹലോ ആ പറ അതെ റെഡ്ബസ്സിൻ്റെ ഓഫീസാണ് അതെ അതെ

അല്ല നിങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ നിങ്ങൾ സ്ഥലം കറക്റ്റ് ആയിട്ടത് ചെക്ക് ചെയ്തായിരുന്നോ അതായത് നിങ്ങൾ സമയം നിങ്ങൾ നമ്മൾ നിങ്ങൾ എത്ര മണിക്കായിരുന്നു രാവിലെ എത്ര മണിക്കാ ബുക്ക് ചെയ്തേക്കുന്നത് ആ ഇന്ന് രാവിലെ ചെയ്ത് അതായത് ഇവിടുന്ന് രാത്രി പുറപ്പെടുന്നു ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്തപ്പോളുള്ള സമയം മാറിപ്പോകാനുള്ള സാധ്യത യാണ് ഇതിൽ ഞാൻ കാണുന്നത് അല്ലല്ലല്ലല്ല ട്വൽവ് ഹവേർസിൻ്റെ ക്ലോക്ക് ആണ് നമ്മുടെ ആപ്പിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പി എമ്മിന് പകരം എ എമ്മ് ആയിരിക്കും കൊടുത്തത് അതുകൊണ്ടായിരിക്കും സാരമില്ല ഇത് നമുക്ക് നമ്മുടെ വിലപ്പെട്ട കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് ഇന്ന് വൈകിട്ടത്തേക്കിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് റീഫണ്ടിൻ്റെ ഓപ്ഷനില്ല നമുക്ക് ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാലിങ്ങനെ നമ്മുടെ കസ്റ്റമർടെ കൈയിൽനിന്ന് അറിയാതെ ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ ഒരു ടിക്കറ്റൂടെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് കാരണം അത് കാൻസലായി വേറൊരാൾക്ക് കൊടുത്തു വേറൊരാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അടുത്തൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാനുള്ള ഇത് മാത്രമേ നിലവിൽ നമ്മളെ അടുത്തുള്ളൂ അല്ലാതെ റീഫണ്ടിനുള്ള ഒരു ഓപ്ഷൻസും ഇല്ല ഇല്ല ഇത് ഇത് ഞങ്ങളുടെ ടെക്നിക്കൽ എറർ അല്ല ഒരിക്കലും ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്തതിൻ്റെ പുറത്തുള്ള തെറ്റാണ് പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ഒരു വിലപ്പെട്ട കസ്റ്റമറായ നിലയ്ക്ക് തന്നെ ഞങ്ങളവിടെ എ എം പി എം കൊടുത്തിട്ടുണ്ട് താങ്കളത് ശ്രദ്ധിക്കാതെ മാറ്റിയതാണ് മറ്റുള്ള ബസ്സുടമകളാണെങ്കിൽ അല്ല ബസ്സ് കമ്പനികളാണെങ്കിൽ ഈ ഓപ്ഷൻ പോലും കൊടുക്കാറില്ല അത് പൊതുവെ കസ്റ്റമർടെ തലയിൽ കെട്ടി വെച്ചിട്ട് പൈസ ആയിട്ട് തരാനുള്ള ഓപ്ഷൻ്റെ ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ തങ്കളുടെ അടുത്ത ടിക്കറ്റ് നമ്മുടെ ഇതിൽനിന്ന് ബുക്ക് ചെയ്യാം അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നീങ്ങാം അതൊന്നും നമുക്ക് വിഷയം ഉള്ള കാര്യമല്ല നമ്മൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഗൈഡ്ലൈൻസ് കൊടുത്തതിൻറ്റകത്ത് പോളിസി കാര്യത്തിൽ നമ്മളിതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് വായിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളറിയണമെങ്കിൽ വായിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതൊരിക്കലും കമ്പനിടെയല്ല കമ്പനിയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കസ്റ്റമർനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതാ സുഹൃത്തെ ഞാൻ പറയുന്നത് താങ്കൾക്ക് റീഫണ്ടിനുള്ള ഓപ്ഷനില്ല വേറൊരു ടിക്കറ്റ് എടുത്ത് തരാനുള്ള ഓപ്ഷൻ മാത്രമേ തൽക്കാലം ഞങ്ങളുടെ അടുത്തുളളൂ

ആ പൈസയായിട്ട് റീഫണ്ട് ചെയ്യാനുള്ള മാർഗ്ഗം ഇല്ല നമുക്ക് അതിന് പകരം ആ ഇന്നത്തെ ഇന്ന് വൈകിട്ടത്തെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്ലിയറായി വരും കാരണം ഇപ്പം ഇത് ഇത് ഈ വളരെ ചുരുക്കം കാലത്തേക്ക് നീണ്ട ഞങ്ങൾ നടത്തുന്ന ഒരു ഓഫറ് ആണെന്നുള്ളൂ ഇത് കുറച്ചുദിവസം കഴിയുമ്പഴത്തേക്കും ഇതും ഞങ്ങൾ നിർത്താൻ പോവുന്നതാണ് ഇത് ഇതങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ കസ്റ്റമേസ്ന് ഇങ്ങനെ വലിയ മണ്ടത്തരങ്ങൾ കാണിക്കാറില്ല പക്ഷെ ഇത് താങ്കൾക്ക് പറ്റിയതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈയൊരു ഓപ്ഷൻ തരുന്നത് ആ താങ്കൾക്ക് അബദ്ധം പറ്റിയതിനിപ്പം നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ ആ നമുക്ക് ഇതിന് റീഫണ്ടൊന്നുമില്ല വേണമെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്കിനുള്ള ബസ്സ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ് ആ തീർച്ചയായും അത് ബുക്ക് ചെയ്തിരിക്കും